നൃത്ത്യ രീതികൾ എന്നു പറയുമ്പം രണ്ട് തരത്തിലാണ് ഉള്ളത് ക്ലാസ്സിക്കും അതുപോലെതന്നെ വെസ്റ്റേൺ ഹിപ്ഹോപ്പ് ബോളിവുഡ് കണ്ടംബററി അങ്ങനെ ഇന്നത്തെ കാലത്ത് ആളുകൾ കൂടുതലായി തിരഞ്ഞെടുക്കുന്നത് വെസ്റ്റേൺ പോലുള്ള നൃത്ത കല നൃത്ത്യ കലകളാണ് ക്ലാസ്സിക്കൽ ഡാൻസുകൾ ഇന്ന് അന്യം നിന്നുകൊണ്ടുരിക്കുകയാണ് വെസ്റ്റേൺ ഡാൻസുകളിലേക്ക് ആണ് എല്ലാവരുടെയും കണ്ണുകൾ ഓടിയെത്തുന്നത് അതുപോലെ ഹിപ്ഹോപ്പ് ബോളിവുഡ് കണ്ടംമ്പററി എന്നുള്ള ഡാൻസുകളിലേക്കും നൃത്ത്യ കലകളിലേക്കും ആളുകൾ നെട്ടോട്ടം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൂടാണ്ട് ഇപ്പം പലതരത്തിലുള്ള വർക്ഔട്സ് പോലുള്ള ഏറോബിക്സ് അങ്ങനെയുള്ള പലതരത്തിൽ ഉള്ള നൃത്ത്യ കലകൾ ഇന്ന് സജീവമായി നിലകൊള്ളുന്നുണ്ട് ക്ലാസ്സിക്കൽ ഡാൻസുകൾ ഇന്ന് വളരെ വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് അല്ലാതെ വെസ്റ്റേർണും ഹിപ്ഹോപ്പുകളും ആണ് ഇപ്പം ഇന്ന് ആൾകളുടെ കണ്ണിലേക്ക് ഓടിയെത്തുന്നതും പഠിക്കാൻ താല്പര്യം ഉള്ളതായിട്ടു ഇരിക്കുന്നതും